കേരളത്തിലെ ഏറ്റവും ജനപ്രിയ വിനോദംന്നു പറയണത് സിനിമ മേഖലയില് സിനിമ മേഖല തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പൊൾ നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ മലയാള സിനിമയായാലും തമിഴായാലും കേരളത്തില് നല്ല പ്രചാരം ഉള്ളൊരു മേഖലയാണ് സിനിമാ മേഖല ഓരോ ദിവസോം ഇറങ്ങുന്ന ഇപ്പൊ നമ്മുടെ ഓരോ നടന്മാരും ഇപ്പൊൾ പറയുക ഇഷ്ടംപോലെ നടന്മാരുണ്ട് അപ്പൊ അവരെയൊക്കെ സിനിമകള് നല്ല രീതിക്ക് എന്താ പറയാ ബാക്കിയിപ്പോൾ തമിഴ്നാട്ടില് അല്ലെങ്കിൽ വിജയിൻ്റെ സൂര്യടെ അങ്ങനെത്തെ പിന്നെ നമ്മടെ തമിഴ് എന്താ പറയുക നമ്മടെ നടന്മാരെ നോക്കുമ്പോഴാണേൽ ആസിഫലി ദിലീപ് അങ്ങനെ എല്ലാ ആൾക്കാരുടെയും സിനിമ നമ്മള് നല്ല രീതിക്ക് ഇവിടെ പ്രചാരത്തിലുണ്ട് പിന്നെ സിനിമ മേഖേലെപ്പോലെ നമുക്ക് പിന്നെ വേറെ കാണാൻ പറ്റുന്ന ഇപ്പൊൾ ഈ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ നാടൻ പാട്ട് കലാകാരന്മാര് അവർക്ക് നമ്മുടെ വിനോദ മേഖലയായിട്ട് നല്ലൊരു എന്താ പറയുക കൃത്യമായിട്ട് അവര് ഒരു അവബോധം അല്ലെങ്കി നല്ലൊരു പ്രചാരത്തിലുള്ള മേഖലയാണ് ഈ മാപ്പിളപ്പാട്ടിൻറ്റെം പിന്നെ നാടൻ പാട്ട് കലാകാരന്മാര് കലാകാരികള് അങ്ങനെ പിന്നെ നൃത്തത്തിനെ നോക്കുകാന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ എന്താ പറയുക ഈ കർണ്ണാട്ടിക് അങ്ങനത്തെ മ്യൂസിക്ക്കള് എന്താ പറയുക നൃത്തത്തിന് നമ്മള് നോക്കാന്നു പറയുമബോൾ കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനത്തെ ശാസ്ത്രീയമായിട്ടുള്ള നൃത്തങ്ങളും പിന്നെ അതുപോലെത്തന്നെ ഇപ്പൊ കുറച്ചുംകൂടെ നമുക്ക് നമ്മുടെ ഈ സിനിമാറ്റിക് ഡാൻസിന് കുറച്ചുംകൂടെ പ്രചാരം വന്നിട്ടുണ്ട് ഇപ്പൊൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഈ സിനിമാറ്റിക് ഡാൻസിനൊക്കെ നല്ല പ്രചാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നാടകം പണ്ടത്തത്രേ ഇല്ലെങ്കിലും ഇപ്പൊഴും ചില എന്താ പറയുക ചില ആൾക്കാര് അത് കുറച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതോണ്ട് നാടകവും നമുക്കൊരു വിനോദ വിനോദത്തിന് രൂപമായിട്ട് കണക്കാക്കാവുന്നതാണ്